ഞാനല്ലാണ്ട് എൻ്റെ പൂന്തോട്ടം അതായത് പൂന്തോട്ടത്തിലേക്കൊക്കെ അവൾ ഒരാളാണ് നോക്കുന്നത് എൻ്റെ വൈഫും പെങ്ങളും നോക്കുന്നുണ്ട് അവർ നല്ലോണം പരിപാലിക്കുകയൊക്കെ ചെയ്യും കാരണം എന്താണെന്ന് വച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നതിനെക്കാട്ടും കൂടുതൽ അവരാണ് കൂടുതൽ നോക്കുക അതിനിപ്പം എന്തെങ്കിലും ഇപ്പം പുതിയ ചെടികളെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി വാങ്ങി വയ്ക്കുക പിന്നെ അവർ നല്ലോണം വെള്ളം ഒഴിക്കും അതിന് വളം ഇട്ടു കൊടുക്കും അപ്പോൾ ഇവിടത്തെ വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വേറെ പുറമെയുള്ള വളങ്ങളൊന്നുമല്ല നമ്മളെ എൻ്റെ വീട്ടിൽ പശുവുണ്ട് ആ പശുവിൻ്റെ ചാണകം തന്നെയാണ് നമ്മളെന്ത് ചെയ്യുക വളമായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ചാരം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടു കൊടുക്കും നല്ലോണം വെള്ളം ഒഴിക്കുക അതായത് നമ്മൾ രാവിലെയും വൈകുന്നേരവും കറക്ട് ആയിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ചെടിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലാണ്ടായി പൊങ്ങിവരും അപ്പോൾ എനിക്ക് ചില സമയത്ത് ഇത് നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ഓരോ പണിക്കും കാര്യങ്ങളൊക്കെയായിട്ട് പോവുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ പെട്ടെന്ന് നോക്കാൻ അതായത് നമുക്കിപ്പം അതിനകത്തേക്ക് പെട്ടെന്ന് നോക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വൈഫും എൻ്റെ സിസ്റ്ററും കൂടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം അവർക്കാണെങ്കിൽ എല്ലാ കാര്യവും അറിയാം ലേഡീസും കൂടി ആയതുകൊണ്ട് ഇപ്പം പൂന്തോട്ടത്തെയൊക്കെ പൂക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേഡീസിന് ഭയങ്കര താല്പര്യം ഉള്ളൊരു കാര്യമാണ് നമ്മളെ നമ്മളെന്താ പറയുക ആ ആണുങ്ങളെക്കാട്ടും കൂടുതൽ പെണ്ണുങ്ങൾക്കാണ് കൂടുതലും കൂടെ കൂടുതലും പൂക്കളോട് താല്പര്യം അപ്പോൾ അവർ നല്ലോണം പരിപാലിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്